ഒരു ടൂർണമെൻ്റ് നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ഇന്നിവിടെ കാണാനില്ല രാഷ്ട്രീയ പാർട്ടികളൊട്ടുമില്ലേൽ ചില സംഘടനകളുണ്ട് ചില ക്ലബ്ബായി പ്രവർത്തിക്കുന്ന സംഘടനങ്ങൾ ചില ചെറിയ ചെറിയ കായിക വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് അവർ ചില ഇതു പോലത്തെ പരിപാടികൾ നടത്താറുണ്ട് അതിലവർ സന്തോഷിക്കുന്നു ഇതിനെ ആസ്പദവാക്കി ഞാനൊരു സിനിമയുടെ ഉദാഹരണം പറയാം ഗോധ എന്ന സിനിമയിൽ അവിടെയൊരു പ്രായമുള്ള അവിടൊരു ചെറിയ ആൾ പിള്ളേരുണ്ടെങ്കിലും അവർക്കുള്ള ആഗ്രഹത്തെ ആഗ്രഹമായി ക്രിക്കറ്റ് കളിക്കാൻ അവർക്ക് സ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കിവിടൊരു നല്ലൊരു കളിസ്ഥലമില്ലാത്തതവർക്ക് വലിയൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ അതു പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു സ്ഥലത്താണെങ്കിൽ അത് വേറൊരു കായിക വിനോദം ഉള്ളതു കൊണ്ട് ബാക്കി അവർ സമ്മതി അവർ അത് സമ്മതിക്കുകയില്ല അവരത് അതു പോലെ പക്ഷെ എന്തെന്ന് വെച്ചാലും അവർ ഗുസ്തീ എന്ന കായിക വിനോദത്തെ അവിടെ ഭയങ്കരമായിട്ടും ഉയർത്തുന്നുണ്ട് അവിടെ പഴയ ക ഈ കായി ഏർപ്പെട്ട ആൾക്കാർ അത് പുതിയതായി നടത്താനുമുള്ള ഏർപ്പാടകളൊക്കെ ചെയ്യുകയും നമുക്ക് നമുക്കതിൽ കാണാം അതു പോലെ തന്നെ പെൺകുട്ടികളിൽ അവർ ഭയങ്കരമായി ഉയർ ഉയർച്ച കൊണ്ട് വരികയുണ്ട് പെൺകുട്ടികളെ അതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതു പോലെ തന്നെ കായികം വിനോദങ്ങൾ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായി വേണ്ടൊരു സാധനമാണ് ഇല്ലാല്ലല്ല ഉല്ലാല്ല അപ്പം എന്നാ ചെയ്യണ്ടേ ഇത്രയൊക്കെയല്ലേ പറയാനുള്ളൂ ഇതിൽ കൂടുതൽ നമ്മളെന്ത് പറയും കായികം നല്ലൊരു കാര്യമാണ് നിങ്ങളും നല്ലൊരു കാര്യമാണ് യേ